കുഴൽക്കിണർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴൽ കിണർ കുഴിക്കാൻ വരണ ആൾക്കാർ വന്നിട്ട് ആദ്യം നമ്മുടെ സ്ഥലം നോക്കും സ്ഥലം നോക്കീട്ട് അവിടെ പി വി സി പൈപ്പുണ്ടാവുമല്ലോ ഇപ്പം ഇവർ മൂന്ന് നാല് ഇഞ്ച് വരണ പി വി സി പൈപ്പെടുത്തിട്ട് അവർ എത്ര എവിടെയാണോ നമ്മൾ കുഴൽക്കിണർ കുഴിക്കുന്നത് അവിടെ നോക്കീട്ട് അവർ എത്രയാ പി വി സി പൈപ്പ് ഇറക്കി വയ്ക്കും ഒരു മുന്നൂറ് നാന്നൂറ് അടി ഇറക്കി വെച്ചിട്ട് അതിനകത്ത് മോട്ടറുണ്ടാവും നമ്മൾ വയറും പൈപ്പും ഉള്ളൊരു മോട്ടറ് വയറ് കണക്ട് ചെയ്തിട്ട് മോട്ടറ് ആ പി വി സി പൈപ്പിൽക്കൂടെ താഴേക്ക് ഇറക്കും ഇറക്കി ഇറക്കി പോയിട്ട് പൈപ്പ് വേറൊരു ടാങ്കിലേക്കാണ് കണക്ട് ചെയ്യണത് വയറ് നേരെ നമ്മുടെ എലെക്ട്രിസിറ്റി കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും അടിയിൽ പോയിട്ട് വെള്ളം സക്ക് ചെയ്ത് എടുക്കും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം സക്ക് ചെയ്ത് എടുക്കാൻ സക്ക് ചെയ്ത് എടുക്കുമ്പോൾ താഴെ നിന്നുള്ള സെൻറ്റിഫ്യുഗൾ ഉപയോഗിച്ചിട്ട് നമ്മൾ താഴെ നമ്മൾ ഏറ്റവും മുന്നൂറ് നാന്നൂറ് അടി താഴെയുള്ള വെള്ളം പൊന്തി വരും അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ബോർവെൽ അതായത് കുഴൽ കിണറിലെ വെള്ളം പൊന്തി വരുന്നത് അപ്പോൾ കുഴൽ കിണറിൽനിന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാ പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മെയിനായിട്ട് പി വി സി മോട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നൂറ് നാന്നൂറ് അടി താഴെ കുഴിച്ച് മോട്ടർ ഇറക്കി മോട്ടർ ഇറക്കി എത്ര അടിയാണോ വെള്ളം എവിടെയാണോ വെള്ളം വരണത് വരെ അവിടെ ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ഒരു മുന്നൂറ് നാന്നൂറ് അടി താഴേക്ക് ചെന്നിട്ട് അവിടെ നമ്മുടെ വെള്ളം സക്ക് ചെയ്ത് എടുക്കും ആ വെള്ളം സക്ക് ചെയ്ത് എടുക്കുമ്പോഴാണ് അവിടുന്ന് വെള്ളം വരുക അപ്പോഴാണ് കുഴൽ കിണറിൽ വെള്ളം ഉണ്ടാവുക എന്നിട്ട് നമ്മൾ പൈപ്പ് വെള്ളം എടുത്ത് അവിടെ നമ്മൾ കുഴൽ കിണറാക്കും നമ്മുടെ ഗ്രാമത്തിൽ എല്ലാവർക്കും വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നൊരു വലിയ കിണറുണ്ട് ആ കിണറിന്ന് പറയണ സമയത്ത് അത് സാധാ കിണറാണ് ഒരു നൂറ് നൂറ്റിരുപത് അടിക്ക് കുഴിച്ച് കഴിഞ്ഞിട്ട് ആ കിണറാണ് ആ കിണർ ഒരിക്കലും വറ്റാറില്ല വെയിലത്ത് ആയാലും ഒന്നും വറ്റാത്ത കിണറാണ് ആ കിണറുപയോഗിച്ചിട്ടാണ് ഗ്രാമത്തിലെ ഈ ദരിദ്രരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും കുടിക്കാൻ ആണെങ്കിലും കുളിക്കാൻ അവരുടെ എല്ലാം ജീവിതശൈലിക്കും വേണ്ടി ഉപയോഗിക്കണ നമ്മുടെ വല്യ കിണർ എന്നിട്ടാണ് നമ്മുടെ ഗ്രാമത്തിലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊരു വല്യ കിണറാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖസൗകര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിണർ തന്നെയാണത് ആ കിണറെന്ന് പറയണ സമയത്ത് നമ്മുടെ എല്ലാ ആൾക്കാരും വൈകുന്നേരങ്ങളിൽ വന്നിട്ട് അവർക്ക് വേണ്ട പാത്രങ്ങളും കുടങ്ങളും എടുത്ത് വന്നിട്ട് അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആ കിണറിൽനിന്ന് എടുത്തിട്ടാണ് അവർ ജീവിക്കാറ് ഇപ്പോൾ കുഴൽ കിണറ് ഒരു എവിടേയും വെള്ളമില്ലാത്ത സ്ഥലത്താണ് കുഴൽ കിണർ തപ്പീട്ട് എത്രയും വല്യ ആഴത്തിൽ കുഴിച്ച് ഉണ്ടാക്കണത് കുഴൽ കിണറൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് കുഴൽ കിണർ ഉണ്ടാക്കുക ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സാധാ വല്യ കിണർ ഉപയോഗിച്ചിട്ട് വല്യ കിണറിലാണ് എല്ലാ ആൾക്കാരും വെള്ളത്തിനായിട്ട് ഉപയോഗിക്കണത്